നക്ഷത്രങ്ങളെയും പ്രപഞ്ചത്തെയും കുറിച്ച് പഠിക്കുന്ന ഒരുപാടുണ്ടായിരുന്നു അതിൽ കുറച്ച് അറിവുകളെല്ലാം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇനിയും കൂടുതൽ അറിയുവാൻ ആ ആഗ്രഹമുണ്ട് ആ കുറേശ്ശെ കുറേശ്ശെ അറിഞ്ഞ് പഠിക്കുന്നത് എനിക്കൊരു അറിവായിട്ടാണ് തോന്നുന്നത് നക്ഷത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് പിന്നെ പ്രപഞ്ചം നമുക്ക് പലരീതിയിലും പല അറിവുകളാണ് തരുന്നത് അത് ഒരു അറിവ് ആണ് നക്ഷത്രങ്ങളെയും പ്രപഞ്ചത്തെയും കുറിച്ച് പഠിക്കും പഠിച്ച് പഠിച്ച് പോകുന്നത് നല്ലതായിരിക്കും അതൊരു അറിവു തന്നെയാണ്